എൻ്റെ കുടുംബമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനും എന്റെ അച്ഛനും എന്റെ അമ്മയും ഉള്ളൊരു കുഞ്ഞൊരു മൂന്ന് പേരുടെ കുടുംബമാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇല് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ട് പിന്നെ പോരാത്തതിന് ഞാൻ കോളേജിൽ ചെന്നാലും ഇപ്പം അല്ലാതെ ഇപ്പോൾ എൻ്റെ പ്ലസ് ടു പഠിച്ച ഞാൻ നമ്മളെ പഴയ കാലഘട്ടങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരാണ് എനിക്കുള്ളത് അവരെല്ലാവരും നല്ലൊരു ഒരു മനസ്സിനുടമയുള്ളവരാണ് മിക്കവരും എല്ലാവരും പിന്നെ ഒരു ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെ വെറും ഇതാക്കി നമ്മളുടെ വില മനസ്സിലാ ഒരു കൂട്ടുകാരെന്ന ഒരു വില മനസ്സിലാക്കാതെ പെരുമാറുന്ന കുറച്ച് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം വളരെ നല്ലൊരു കൂട്ടുകാരന്മാരാണ് നല്ലൊരു മനസ്സിന് ഉടമയാണ് എല്ലാവരും പിന്നെ പോയി ക പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എല്ലാവരും വളരെ സപ്പോർട്ട് ആണ് എനിക്ക് സപ്പോർട്ട് ആണ് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അവർ ശ്രദ്ധിക്കാറില്ല ആ എൻ്റെ ഒരിഷ്ടത്തിന് എൻ്റെ ജീവിതം എനിക്ക് വിട്ട് തന്നിരിക്കുന്നതാണ് നിനക്ക് നിനക്ക് നീ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ അത് നിൻ്റെ പഠിത്തത്തിലും നിൻ്റെ ബാക്കിയുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറയും ഇത് തന്നിരിക്കുന്ന ഒര് ഫ്രീഡം തന്നിരിക്കുന്നവരാണ് എനിക്ക് എൻ്റെ വീട്ടുകാർ അതുകൊണ്ട് എനിക്ക് അവരെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല